ഒരു ചിത്രകാരനാവാൻ നമ്മൾ കൂടുതൽ പരിശീലിക്കണം കാരണം ഒരു ചിത്രം വരച്ച് അതില് അതിൽ നമ്മൾ മനസ്സിലാക്കും നമ്മള് നമുക്ക് വരയ്ക്കാൻ സാധിക്കുമോ എന്നത് കാരണം ഒരു പൂവാണെങ്കിൽ ആ പൂവ് പൂവിൻ്റെ ഒരു ഭാഗം വന്നാൽ തന്നെ നമുക്ക് ചിത്രം വരക്കാൻ കഴിയും എന്നാണ് പറയുക കാരണം പിന്നീട് പിന്നീട് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് വരക്കുന്നു അതൊരു മനോഹരമായ പൂവായി മാറും എത്രത്തോളം നമ്മൾ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ചിത്രം മനോഹരമാവുകയും നമ്മളൊരു ചിത്രകാരനും ആവും നമ്മൾ പെൻസിലെടുത്ത് റബറെടുത്ത് നമ്മൾ അതൊക്കെ ചെയ്ത് മായ്ച് മായ്ച്ചും എഴുതിയും വരച്ചും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിത്രംവര കൂടും ഒരു പൂവരയ്ക്കുമ്പോൾ അതിനെ എത്രത്തോളം മനോഹരം നൽകണമെന്നു തീരുമാനിക്കുന്നു ഒരു ചിത്രകാരനാണ് ആ ഒരു കല ആ കല ചിത്രകല എന്നുപറയുമ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന ഒന്നാണ്